കർഷകർ തങ്ങളുടെ മൃഗങ്ങളെ സുരക്ഷിതമായും മാനുഷികമായും പരിഗണിക്കണമെന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം കാരണം അവർക്ക് അവരെ ഒരിടത്ത് കെട്ടുമ്പം അവർക്ക് അതിന് എല്ലാവർക്കും നിൽക്കാനുള്ള സ്ഥലം വേണം പിന്നേ വായു സഞ്ചാരം ഉണ്ടാരിക്കണം എന്നാലെ അവർക്ക് വളരെ അധികം കംഫർട്ടബിൾ ആയിട്ട് നിൽക്കാൻ പറ്റുകയുള്ളു ഇല്ലെങ്കിൽ അവരും ആകെ കിടന്ന് ബഹളവും ബഹളം വയ്ക്കുകയും പിന്നെ വിളിയും ഒക്കെ ആയിട്ട് അവരും ആകെ വിഷമത്തിലായിരിക്കും അതുകൊണ്ട് എപ്പോഴും തങ്ങളുടെ മൃഗങ്ങളെ സുരക്ഷിതമായി വയ്ക്കാൻ വേണ്ടി കർഷകർ ശ്രമിക്കുക തന്നെ വേണം